ഹലോ സ്വിഗ്ഗി അല്ലെ ഞാൻ ഫ്ലെക്സിയാണ് ഞാൻ കുറച്ച് മുന്നേ ഒരു ബിരിയാണിക്ക് ഓഡറ് കൊടുത്തായിരുന്നു അപ്പോൾ എനിക്ക് ആ ബിരിയാണി ഇന്ന് കഴിഞ്ഞപ്രാവശ്യം മേടിച്ചിട്ട് അതിന് ഇച്ചിരി എരിവ് കുറവാണ് അപ്പോൾ എനിക്ക് കുറച്ച് എരിവും കൂടെ വേണമായിരുന്നു ഉപ്പ് ഇത്തിരി ഇല്ലെങ്കിലും കുഴപ്പം ഇല്ല ഈ പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ എനിക്ക് ഇച്ചിരി എരിവ് വേണമായിരുന്നു ഇച്ചിരി എരിവ് കൂട്ടി എടുക്കാനായിട്ട് പറയണേ അന്നേരം എപ്പോഴത്തേക്ക് ആയിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ ഉച്ചക്കത്തേക്ക് ആയിരുന്നു പറഞ്ഞത് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആവുമ്പോൾ കിട്ടുമോ അപ്പോൾ എത്രയും വേഗത്തേക്ക് കൊണ്ടു വരണം ഇച്ചിരി എരിവിൻ്റെ കാര്യം മറക്കല്ലെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ എരിവിൻ്റെ കാര്യം